എൻ്റെ മാതൃഭാഷയായ മലയാളത്തെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയുമായി ഹിന്ദിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് സാമ്യം ഈ രണ്ട് ഭാഷകളും തമ്മിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ചില ഒരുപാട് സംസ്കൃത വാക്കുകൾ മാറ്റം സംഭവിച്ചു മലയാളത്തിലേക്ക് വന്നത് പോലെ തന്നെ സംസ്കൃതവും ഹിന്ദിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഈ ഹിന്ദിയും മലയാളവും തമ്മിലുള്ള ബന്ധത്തെ കൂട്ടി ഉറപ്പികുന്നതിനായിട്ട് തോന്നിയിട്ടുണ്ട് ഹിന്ദി വാക്കുകൾ അതിൻ്റെ ശബ്ദം പലപ്പോഴും മലയാളത്തിലെ പല വാക്കുകളുടെയും ശബ്ദങ്ങൾ ഒന്ന് തന്നെയായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറു അപ്പം അങ്ങനെ ഒരു ഹിന്ദി മലയാളം തമ്മിലുള്ള ആ ഒരു ബന്ധം അതിനെ കൂടുതൽ പഠിക്കാനും എന്താണ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ മറ്റു ഭാഷകളിൽ ഇല്ലെങ്കിലും ഹിന്ദിക്കും മലയാളത്തിനും ഒന്ന് തന്നെയാണ് എന്താണ് അക്ഷരങ്ങളെല്ലാം അവയുടെ ഓർഡറുകളും ക്രമങ്ങളും എല്ലാം ഒന്നു തന്നെയാണ് ഹിന്ദിയിലുള്ള അതേ അക്ഷരങ്ങൾ തന്നെയാണ് മലയാളത്തിലും വ്യഞ്ജനാശരങ്ങൾ വരുന്നതും സ്വരാക്ഷരങ്ങൾ വരുന്നതും കൂട്ടക്ഷരങ്ങൾ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകതയായിട്ട് ഉള്ളത് മലയാളത്തിൽ ഒരുപാട് കാ ങ്ക ങ്ങ ച്ച എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൂട്ടക്ഷരങ്ങളുണ്ടല്ലോ പക്ഷേ അങ്ങനത്തെ കൂട്ടക്ഷരങ്ങൾ ഹിന്ദിയിൽ വരുന്നില്ല മലയാളത്തിലാണ് ഈ കൂട്ടക്ഷരങ്ങൾ ഉള്ളത് അതാണ് കൂടുതലായി മലയാള ഭാഷയിൽ വരുന്ന ഒരു എന്താണ് അക്ഷരങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി വായിക്കുന്നതിനും എഴുതുന്നതും രീതി ഒന്ന് തന്നെയാണ് ഇപ്പോഴും ഹിന്ദി ഓരോ വാക്കുകൾ കഴിഞ്ഞു എഴുതുന്നത് പോലെ മലയാളവും നമ്മൾ ഓരോ എന്താണ് വാക്യങ്ങൾ കൂടിക്കൂടി വരുന്നതിനു അനുസരിച്ചാണ് ഓരോ വാക്കുകൾ അതിൻ്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കുന്നത് അങ്ങനെ രണ്ടും എഴുതുന്ന രീതിയിലും ഒരുപാട് സാമ്യതകൾ ഉണ്ട് ഈ സ്വരാക്ഷരങ്ങളുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണം ഹിന്ദിയിലും മലയാളത്തിൽ ഒന്ന് തന്നെയാണ് ഒരുപാട് വ്യത്യാസങ്ങൾ ഇല്ല ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ചില വാക്കുകൾക്ക് ചില അക്ഷരങ്ങൾക്ക് വ്യത്യാസം മാത്രമേ ഈ രണ്ട് ഭാഷകളിലള്ളു ബാക്കി ഒന്ന് തന്നെയാണ് ഉച്ചാരണവും അക്ഷരങ്ങളുടെ എണ്ണം ഒക്കെ ഏകദേശം ഒരേ പോലെ തന്നെയാണ് ഹിന്ദിയിലും മലയാളത്തിലും വരുന്നത് എന്നാലും എൻ്റെ മാതൃഭാഷ മലയാളമായത് കാരണം ഞാൻ കേട്ട് വളർന്നതും പഠിച്ചതും എപ്പോഴും ഉപയോഗിക്കുന്നതും അതായത് കാരണം അത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് കൂടുതൽ ഈ കേരളത്തിൽ നിന്ന് ഹിന്ദിയുമായിട്ടുള്ള ഒരു ബന്ധം കുറവായത് കാരണം ഈ ഹിന്ദി പഠിക്കുന്നതിലും ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നതിലും കുറച്ച് ബുദ്ധിമുട്ട് മലയാള ഭാഷ ഉപയോഗിക്കുന്നത് മാതൃഭാഷ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ കേരളത്തിൽ പിന്നെ ഹിന്ദി നമ്മൾ കേരളത്തിന് പുറത്തേക്ക് കടന്നാൽ മാത്രാണ് ഹിന്ദി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണെന്ന് പറയുമ്പോഴും നമ്മൾ കുഞ്ഞുനാൾ മുതൽ അങ്ങനെ ഒരു ഈ ഭാഷ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കുറച്ചു മാത്രം പഠിച്ചു പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നു എന്നത് എന്ന് മാത്രമാണല്ലോ ഉള്ളത് അതുകൊണ്ട് ഹിന്ദി ഭാഷ പഠിച്ചു അതു ഒരുപാട് വാക്കുകളുള്ള ഉച്ചാരണത്തിലൊക്കെ വ്യത്യസ്തതകളുണ്ടല്ലോ അത് ആ പ്രദേശങ്ങളിൽ ചെന്നു കഴിയുമ്പോൾ നമുക്ക് അതുപയോഗിക്കേണ്ടതായി വരുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത് കാരണം അതിനകത്ത് അത് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമാട്ട് വരുന്നുണ്ട് എന്നാലും നമ്മൾ അത് പഠിക്കുന്നില്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കൂടുതൽ മലയാളഭാഷ രണ്ട് തമ്മിൽ സാമ്യതകളുണ്ടെന്ന് പറഞ്ഞാലും ഓരോ ഭാഷയും അതിൻ്റെ പ്രത്യേകതകളോട് കൂടി അതിൻ്റെ ആദ്യം മുതൽ പഠിച്ചാലാണല്ലോ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏത് സാഹചര്യങ്ങൾ നമുക്ക് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നത് കൂടുതലായിട്ട് ആ ഭാഷ പഠിക്കുമ്പോഴാണല്ലോ അപ്പം ഹിന്ദി ഭാഷ പഠിക്കുന്നത് ഒരു നല്ല കാര്യമാണ് പക്ഷെ മലയാളം പഠിച്ചു മലയാളം സംസാരിച്ചു വളർന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചു അതിന്ശേഷം ഹിന്ദി ഭാഷ ആദ്യം മുതൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ഒരുപാട് സാമ്യതകൾ എന്നാലും മറ്റു ഭാഷകൾ വച്ചു നോക്കുമ്പോൾ ഹിന്ദിയും മലയാളം തമ്മിലുള്ള ബന്ധം കൊണ്ട് അത് നമുക്ക് പഠിക്കാൻ കൂടുതലായിട്ട് ഉപയോഗപ്പെടും പ്രയോജനപ്പെടാറുണ്ട് ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് എന്താണ് വാക്കുകളിൽ ഉള്ള ഒരു വാക്യത്തിൻ്റെ ഘടനയൊക്കെ ഒരേപോലെ ആണെന്ന് പറഞ്ഞാലും ഓരോ വാക്കുകൾക്ക് ഓരോ രണ്ട് ഭാഷയിലും വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ശബ്ദമാണല്ലോ വരുന്നത് അതൊരു വലിയ വ്യത്യാസമായിട്ട് തോന്നാറുണ്ട് അപ്പം ഈ വാക്കുകളൊക്കെ ഹിന്ദി ഒരു വാക്ക് ഒരു വസ്തുവിനെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് അത് ആ സെയിം ശബ്ദം മലയാളത്തിൽ മറ്റൊരു വസ്തുവായിരിക്കും അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമാണല്ലോ ഉപയോഗപ്രദമായ രീതിയിൽ എന്താണ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആ വാക്കുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം രണ്ടു ഭാഷയും സാമ്യങ്ങൾ ഉണ്ടെങ്കിലും അത് പഠിക്കാൻ എളുപ്പമാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട് ഹിന്ദിയിൽ ഹിന്ദി പദങ്ങളൊക്കെ പഠിച്ചാലാണ് അതിൻ്റെ ഭാഷ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഒരു വ്യത്യാസം എന്നു പറയുന്നത് മലയാളം ഭാഷയുടെ ഗ്രാമർ വ്യാകരണം എന്നു പറയുന്നത് വളരെ കടുപ്പമുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആശ്രയിച്ചു അതെല്ലാം നോക്കിയാണ് ശരിക്ക് ഒരു മലയാള ഭാഷയിൽ ഒരു വാക്യം ഈ ഗ്രാമറൊക്കെ നോക്കി രുപീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അത് വച്ചു നോക്കുമ്പോൾ ഹിന്ദിയുടെ ഗ്രാമറ് അല്ലെങ്കിൽ വ്യാകരണം എന്നു പറയുന്നത് സിമ്പിൾ ആണ് ഈസി ആണ് ആർക്കും പെട്ടെന്ന് പഠിക്കാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമറുകളോ പ്രശ്നങ്ങളോ ഒന്നും ഹിന്ദിക്ക് ഇല്ല പക്ഷെ മലയാളത്തിന് അങ്ങനെ അല്ല ഒത്തിരി പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരുപാട് ഗ്രാമറുകൾ വ്യാകരണം ഒരുപാട് ഉണ്ട് അതെല്ലാം നോക്കിയാലാണ് മലയാളം പിന്നെ ജനനം മുതൽ പഠിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചു ഗ്രാമറൊന്നും വേണ്ട മലയാളത്തിൽ പക്ഷെ പുറത്തു നിന്ന് ഒരാൾ മലയാളം അറിയത്തില്ലാത്ത ഒരാൾ മലയാളം പഠിക്കാൻ വരികയാണെങ്കിൽ മലയാളം വാക്കുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് എഴുതാൻ വാക്കുകൾ പഠിക്കാൻ അതിലേക്കാളൊക്കെ ഉപരി ഈ ഗ്രാമറിൻ്റെ കോംപ്ലിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്

ഇതൊക്കെയാണ് ഈ മലയാള ഭാഷയും പിന്നെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയുമായ ഹിന്ദിയുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം എന്നു പറയുന്നത്